എൻ്റെ കുടുംബത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൾ ഹസ്ബൻഡ് പിന്നെ എൻ്റെ ഒരു മോനുണ്ട് അങ്ങനെ അവൻ ചെറുതാണ് അവന് ഒന്നര വയസ്സായിട്ടേ ഉള്ളൂ മോൾക്ക് അഞ്ച് വയസ്സായി അവളെ എൽ കെ ജി യു കെ ജിയിൽ വിട്ടിട്ടുണ്ട് പിന്നെ ഹസ്ബൻഡ് ഒരു സിവിൽ പോലീസ് ഓഫീസറാണ് പിന്നെ നമ്മുടെ ഇവിടെ താമരശ്ശേരിയിൽ തന്നെയാണ് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക എൻ്റെ കുടുംബത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ നാല് പേരാണ് ഉണ്ടാ അതായത് ഹസ്ബൻഡിന് ട്രാൻസ്ഫർ കിട്ടുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് മാറുന്നതാണ് അപ്പം ഞങ്ങൾ ആദ്യം ഞങ്ങൾ കണ്ണൂരായിരുന്നു ഇപ്പോൾ ആണ് നമ്മളിങ്ങനെ കോഴിക്കോടേക്ക് മാറിയിട്ടൊരു മൂന്ന് നാല് മാസമേ ആയിട്ടുള്ളു ഇതാണ് എൻ്റെ ഫാമിലിനെ കുറിച്ച് പറയാൻ ഉള്ളത് എൻ്റെ ഫ്രണ്ട്സ് കൂടുതലായിട്ടും കണ്ണൂർ തന്നെയാണ് ഉള്ളത് നമ്മ എന്നെ കണ്ണൂർ തന്നെയാണ് എൻ്റെ വീട് എന്നെ കെട്ടിച്ചതും കണ്ണൂരിലേക്ക് തന്നെയാണ് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെയും ഹസ്ബൻഡിൻ്റെയും കൂടുതൽ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പിന്നെ കണ്ണൂർ തന്നെയാണ് ഉള്ളത് ഇവിടെ ഇല്ലാതില്ല ഇവിടെ അധികം പരിചയം ഒന്നും ആയി വന്നിട്ടില്ല നമ്മളുടെ കോട്ടേഴ്സിൻ്റെ അപ്പുറത്തൊക്കെ ഉള്ളവരോട് നമ്മൾ നല്ല കമ്പനി ഒക്കെ ഉണ്ട്